ഇപ്പം ഒരു മത്സ്യ ബന്ധന യാത്രക്ക് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്താറുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പം നമ്മളിപ്പം ചില വീടുകളിലൊക്കെ അതിന് ആചാരങ്ങളും കാര്യങ്ങളും പിന്നെ ചെലരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യബന്ധന യാത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരാഴ്ച ഒന്നര ആഴ്ച അല്ലെങ്കിൽ എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും കൂടി പോയ മൂന്ന് നാല് ദിവസം കൊണ്ടേ മത്സ്യബന്ധന യാത്രകളൊക്കെ തീരൂകയുള്ളൂ അപ്പോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മെയിനായിട്ട് പ്രാർത്ഥിച്ചിട്ടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുക കാരണമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് മീനുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ആയിരിക്കും അവർ മടങ്ങുക പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആചാരങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് ആചാരങ്ങൾ പ്രാർത്ഥിക്കുക അച്ഛനെയും അമ്മേനോടും ഒക്കെ പറയുക എല്ലാവരോടും പറഞ്ഞിട്ട് പോവുക പിന്നെ എന്ന് വെച്ചാൽ തയ്യാറെടുപ്പുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലയൊക്കെ നെയ്ത് അതായത് നാശായിപ്പോയ വലയൊക്കെ നെയ്ത് അതൊക്കെ റെഡിയാക്കി പിന്നെയന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അത് കഴിഞ്ഞതിനു ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തെങ്കിലും അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും സംഭവി അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അതൊക്കെ നേരിടാനുള്ള ഓരോ സാധനങ്ങളും മുൻകരുതലുകളും ഒക്കെ എടുത്തിട്ടായിരിക്കും അവർ പോവുക